നൃത്തത്തെ കുറിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നവരുണ്ട് അത് അതിനുള്ള കഴിവ് കിട്ടിയ ആൾക്കാർ ഉണ്ട് അല്ലാണ്ട് നമ്മൾ എൻജോയ് ചെയ്തു കളിക്കുന്നവർ ഉണ്ട് അതിന് ഇപ്പം പഠിക്കണം എന്നൊന്നും ഒരു ആവശ്യമില്ല പല ഇപ്പം നൃത്തം അഭ്യസിക്കുന്നവർ അല്ലാത്തവർ പോലും കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ മെമെൻ്റും ആ ഒരു ആ ഒക്കേഷനും ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മൾ എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത് നമ്മളുടെ ഒരു ഫാമിലി ഫങ്ക്ഷനൊക്കെ വരുമ്പോൾ ആണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഒന്നു അത് പഠിച്ചെടുക്കാൻ മേബി ഒരു മൂന്ന് നാല് ദിവസം വളരെ തുച്ഛമായിട്ടുള്ള സമയത്ത് അത് വളരെ ഭയങ്കര ഇങ്ങനെ കറക്റ്റ് സ്റ്റേജിൽ കളിക്കുന്നതു പോലെ കളിക്കണം എന്നില്ലല്ലോ നമ്മൾ കറക്റ്റ് ആ മൊമൻ്റ് കറക്റ്റ് ആസ്വദിച്ചു കളിക്കുന്നതിലാണ് അതാണ് ഇതിൻ്റെ ആ മൊമെൻ്റിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് നമ്മൾ ഏതെങ്കിലും ഫംങ്ഷനോ അല്ലെങ്കിൽ നല്ല ഒരു പാട്ടോ കേൾക്കുമ്പം നമുക്ക് കളിക്കാൻ തോന്നിയത് ആ ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു പ്രസൻസും പിന്നെ എന്താണ് നമുക്ക് ആ ഒക്കേഷന് ഓളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്ത് ഇതാക്കാൻ പിന്നേ വലിയ നിർത്തങ്ങളൊക്കെ ആണെങ്കിൽ അതായത് ഭാരതനാട്യം പോലെ അങ്ങനെയുള്ള വല്യ വലിയ ക്ലാസ്സിക്കൽ നിർത്തമൊക്കെ ആണെങ്കിൽ വർഷങ്ങൾ എടുക്കും സമയം നമ്മളുടെ ഒക്കെ ചെറിയ ഒരു ഫങ്ക്ഷനൊക്കെ പഠിക്കുന്ന നൃത്തമാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചിറങ്ങാം